ഇന്ന് ലോകത്ത് ഹെഡ്സെറ്റ് കൊണ്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ ഒരുപാടാണ് ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് ഒരുപാട് പേർ കിടന്നുറങ്ങുന്നു ഹെഡ്സെറ്റ് ദീർഘനേരം ചെവിയിൽ വെക്കുന്നു ഇത് കാരണം ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെടുന്നു ചെവിയിലേക്ക് ആഴ്ന്നിറങ്ങുന്നു അങ്ങനെ ഒരുപാട് ദുരന്ത വാർത്തകളാണ് നമുക്ക് ഈ ഹെഡ്സെറ്റിന്റെ ഭാഗത്ത് നിന്നും കേൾക്കാൻ കഴിയുന്നത് ഹെഡ്സെറ്റ് ഒരുപക്ഷേ ഗുണമായിരിക്കാം പക്ഷേ ഇത് അമിതമാവുമ്പോൾ വളരെ വളരെ വളരെ ദുർബലമായ ഒന്നു തന്നെയാണ് ഈ ഹെഡ്സെറ്റ് ചെവിയുടെ കേൾവി നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഭയങ്കര ഭയാനകമായ ഒരു അവസ്ഥ തന്നെയാണ് ഒരുപാട് കുട്ടികൾ ഇന്നത്തെ കാലത്ത് ഈ എല്ലാവരുടെയും കയ്യിൽ ഹെഡ്സെറ്റുകൾ കാണാം ഇത് ദീർഘനേരം ഉപയോഗിക്കുമ്പോൾ അവരുടെ കേൾവിശക്തി വരെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഡോക്ടർമാർ വരെ പറയുന്നുണ്ട് ദീർഘനേരം ഹെഡ്സെറ്റ് ഉയപയോഗിക്കരുത് അത് ഈ ചെവിക്ക് വളരെയാധികം ദുരൂപയോഗമാണ് അത് ഉപയോഗിച്ച് കേൾവിശക്തി നഷ്ടപ്പെട്ടാൽ വളരെ സങ്കടപ്രദവുമായ ഒരു കാര്യവുമാണ്